ഹലോ വയനാട്ടിലെ ട്രെക്കിങ്ങ് ഗൈഡ് ആയിരുന്നു ആരായിരുന്നു

സ്ഥലങ്ങൾ കുറേ സ്ഥലങ്ങൾ ഉണ്ട് പിന്നെ കുറുമ്പലക്കോട്ട ഉണ്ട് പിന്നെ പക്ഷി പാതാളം പക്ഷി പാതാളം ബേർഡ് സാൻച്വാറി അ എല്ലാം ഉണ്ട് കുറുമ്പാലക്കോട്ട കുഴപ്പമില്ല നല്ല വ്യൂ ആണ് നമ്മളെ പള്ളിക്കുന്നെന്ന് പറഞ്ഞ സ്ഥലമാണ് ഉള്ളത് കൽപ്പറ്റ അപ്പോ നിങ്ങൾ അവിടന്നാണ് വരുന്നത് എവിടെ കോഴിക്കോടിന്നല്ലേ വരുന്നേ എന്നാണ് വരുന്നത് അ കുഴപ്പമില്ല അവിടെ നല്ല ഒരു സ്ഥലമാണ് അതായത് രാവിലെ നമ്മൾ മോർണിംഗില് ഒരു വ്യൂന് വേണ്ടീട്ടാണ് അവിടെ പോകുന്നത് മേലേക്ക് വണ്ടി കയറി പോവും അതെ നിങ്ങൾ വണ്ടി കൊണ്ടാണോ വരുന്നത് പക്ഷേ ഇവിടെ ഒക്കെ നമ്മടെ വണ്ടി ആയിരിക്കും കുറച്ച് കൂടെ നല്ലത് നിങ്ങക്ക് കാട്ടിലൂടെ ഒക്കെ പോകണെങ്കിൽ വണ്ടി നമ്മടെ വണ്ടി ആണ് നമ്മക്ക് ജീപ്പ് ഉണ്ട് ജീപ്പിൽ ട്രെക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് പക്ഷേ നിങ്ങളെ വണ്ടി കൊണ്ട് പോവുമ്പോ അവിടെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുപോലെ കേറ്റിയും വിടൂല്ല അപ്പോൾ ഫോറസ്റ്റ്കാരുടെ ഒരു ഇത് ഒരു നിബന്ധന ഉള്ളൊണ്ട് നമ്മുടെ വണ്ടികൾക്ക് മാത്രമേ അവിടേക്ക് പ്രവേശനുള്ളൂ അ പിന്നെ ഈ അ കുഴപ്പമില്ല അതിന് അനുസരിച്ച് വണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്യാം എന്നായിരുന്നു വരുന്നത് എന്നായിരുന്നു എന്നായിരുന്നു വരുന്നത് മുപ്പതാം തിയതി അല്ലെ അതെ ഓക്കേ ഓക്കേ

അ ഓ ശെരി നമ്മൾ പരമാവധി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പറയുന്നത് വല്യ കൊഴപ്പൊന്നും ഇല്ലാത്ത റേറ്റിൽ പിന്നെ പല വേറെ വേറെ സ്ഥലങ്ങൾ ഉണ്ട് വയനാട്ടിലെ ഏകദേശം ട്രാക്കിംഗിന് പറ്റിയ എല്ലാ സ്ഥലങ്ങളും നമ്മൾ കൊണ്ടോയ് കാണിക്കും അ പിന്നെ വാട്ടർഫാൾസ് അത അല്ല അല്ല അല്ല ഫുൾ ഉണ്ടാവും അതായത് കുറുമ്പലക്കോട്ട മാത്രല്ല പക്ഷി പാതാളം ഇവിടെ നമ്മൾ ഒരു എന്താ പറയാ ഒരു ഹിൽ ഉണ്ട് അതായത് ഇവിടെ തന്നെ അടുത്ത തന്നെ ഒരു ഹിൽ ആണ് പിന്നെ അത് സ്റ്റേ ചെയ്യുന്നത് വേണെങ്കിൽ റിസോർട്ട് ആക്കി തരാം അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകളിലോ നിങ്ങൾക്ക് എവിടെ ആണോ താല്പര്യം അവിടെ നമ്മൾ ആക്കി തരും ഇപ്പൊ ബഡ്ജറ്റ് കുറഞ്ഞിട്ടാണെങ്കില് ഹോട്ടലുകളിൽ ആണ് കുറച്ച് കൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് ഇനി അഥവാ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വേണേൽ റിസോർട്ടുകളിൽ ആക്കി തരാം റിസോർട്ടിൽ ലേശം പൈസ ക്യാഷ് കുറച്ച് എമൗണ്ട് കുറച്ച് കൂടുതൽ ആവും അ അപ്പം ഏതാ ബെറ്റർ എന്ന് നോക്കീട്ട് നിങ്ങൾ പറഞ്ഞാ മതി നിങ്ങൾക്ക് ഏതാ താല്പര്യം അത് വേണേൽ ആക്കി തരും അ നിങ്ങൾ നോക്കിട്ട് ഒന്ന് വിളിക്കൂ അ ഓക്കെ എന്നാൽ